യേശുദാസിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ നല്ല ആസ്വദിക്കാനും മെലഡി രീതി കേട്ടിരുന്നാൽ നമ്മൾ അറിയാതെ ആ പാട്ടില് മുഴുകിപ്പോകുന്ന പാട്ടുകളാണ് യേശുദാസിൻ്റെയൊക്കെ യേശുദാസിനെ ഇഷ്ടപ്പെടാൻ വേറൊരു കാരണം കൂടി ഉണ്ട് എൻ്റെ നാട്ടിലാണദ്ദേഹം എൻ്റെ നാട്ടിലെ ഒരു ഗുരുവിൻ്റെ ശിഷ്യനാണ് യേശുദാസ് ചെമ്പൈ ഭാഗവതർ എന്ന് പറയുന്ന ഗുരുനാഥൻ്റെ ശിഷ്യനും കൂടെയാണ് യേശുദാസെന്ന് പറയുന്നത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഗുരുനാഥൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ വരാറുള്ളപ്പോൾ ഞാനദ്ദേഹത്തിനെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊ അന്ന് കാണാൻ പറ്റി അതേപോലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകള് കേൾക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പാട്ടുകളും ഞാൻ മനസ്സ് റിലാക്സേഷന് വേണ്ടീട്ടും അതേപോലെ ആസ്വദിക്കാനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടിയാണ് യേശുദാസ് കെ ജെ യേശുദാസെന്ന് പറയണത് അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും വളരെ നല്ലതാണ് അത് ഭക്തി ഗാനങ്ങളാണങ്കിലും സിനിമാഗാനങ്ങളാണങ്കിലും അത് എല്ലാം ഇന്ന പാട്ടെന്നില്ല അദ്ദേഹത്തിൻ്റെ സൗണ്ട് തന്നെ കേൾക്കാൻ ഭയങ്കര ഇഷ്ട്ടത്തിലാ ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടിയാണ്